നമ്മളിവിടെ പ്രളയം ഒക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ ജലമലിനീകരണം അതിൽ നമ്മൾ വളരെ അധികം ആശങ്കപ്പെട്ടിരുന്നു ആ കാരണം നമ്മുടെ ഒഴുകിയെത്തുന്ന വേസ്റ്റ് നമ്മുടെ പുഴയിലേക്കായിട്ട് നന്നായിട്ട് മത്സ്യങ്ങക്ക് വേണ്ടി ആ ഒരു ഇതിൽ നന്നായിട്ട് മോശം ആയിരുന്നു പിന്നെ മത്സ്യബന്ധനത്തിന് നമുക്ക് ആശങ്കയെന്നു പറയുമ്പം മഴക്കാലഘട്ടത്തിലൊക്കെ നമ്മൾ പോയിട്ട് മൽസ്യബന്ധനത്തിനൊക്കെ പോവുമ്പം അയിൻ്റേതായ ക്ഷോഭങ്ങളുണ്ടാവും അപ്പോൾ അതിൽ മാത്രമാണ് നമ്മൾ കുറച്ച് ആശങ്കപ്പെടേണ്ടതുള്ളൂ